എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാർഡർണിങ് ഭയങ്കര ഇഷ്ടമാണ് പറമ്പിൽ പിന്നെ പണിയെടുക്കാൻ ഇഷ്ടമാണ് ചെടി വെക്കാൻ ഇഷ്ടമാണ് പിന്നെ കപ്പ കാച്ചിൽ ചേന ചേമ്പ് വാഴ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് നട്ട് വളർത്താനും വളമിട്ട് കൊടക്കാനൊക്കെ ഇഷ്ടമാണ് അതേപോലെ ഒരു മറ്റൊരു ഇഷ്ടമാണ് പാചകം ചെയ്യാൻ ഇപ്പം വെജ് നോൺ വെജ് അങ്ങനെയൊന്നുമില്ല എല്ലാ തരത്തിലുള്ള പാചക പരീക്ഷണങ്ങളും ഞാൻ ചെയാറുണ്ട് എൻ്റെ അടുക്കളയിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടവും മുൻതൂക്കവും ഞാൻ കൊടുക്കുന്നത് ഭയങ്കര കാര്യമാണ് എനിക്കങ്ങനെ പാചകം ചെയ്യുന്നതിൽ നല്ലൊരു കാര്യമല്ലേ നമ്മൾ അങ്ങനെ പാചകം ചെയ്യുന്നത് ഭയങ്കരിഷ്ടമാണങ്ങനെ പാചകം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടവുമാണ് അപ്പോൾ നമ്മൾ വേറൊരാൾ തിന്നുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാർഡനിംഗും പിന്നെ കിച്ചൺ വർക്ക് അതായത് പാചകം ചെയ്യാനാണ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ